പാചകം ഒരു തൊഴിലായിട്ട് ഏറ്റെടുക്കാനായിട്ട് അതായത് പാചക സ്കൂളുകളോ സ്ഥാപനങ്ങളോ ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പിന്നെ ഓർഡർ മാനേജ്മന്റ് അങ്ങനെയുള്ള ഇതൊക്കെ കുട്ടുകൾക്ക് പഠിക്കാൻ തന്നെ ഉണ്ട് ഇപ്പം ഡിഗ്രിക്ക് ഡിഗ്രി ആയിട്ട് പഠിക്കാൻ ഉണ്ട് പി ജി ആയിട്ട് പഠിക്കാൻ ഉണ്ട് അതിലൊക്കെ ഹോട്ടൽ മാനേജ്മെന്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതുപോലെത്തന്നെ പരിശീലനമൊക്കെ കൊടുക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ പാചകം പഠിപ്പിക്കണ സ്ഥാപനങ്ങള് ഇപ്പോന്ന് വെച്ചിട്ടിണ്ടെങ്കില് നമുക്ക് ഡീ ഡീ യൂ ജീ കേ വൈ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതിലൊക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പിന്നെ ചെയ്യുന്നോര് സം ഒരു സംരംഭമാണ് അപ്പം അതിലൊക്കെന്ന് വെച്ചിട്ടിണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്ക് പെൺകുട്ടികൾക്കൊക്കെ ഫ്രീയായിട്ട് എല്ലാം പഠിക്കാൻ പറ്റും പാചകവും ഒക്കെ പഠിക്കാൻ പിന്നെ അവരുതന്നെ ജോലിയും കാര്യങ്ങളൊക്കെ ആക്കി കൊടുക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്പം നിലവില് വന്നിട്ടുണ്ട് പിന്നെ അതിനായിട്ട് നമുക്ക് സ്കൂളുകളൊക്കെ പറയാം ഐ ടി ഐ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഹോട്ടൽ മാനേജ്മെന്റൊക്കെ പഠിക്കാനും അതായത് ഗവൺമെൻറ് സ്കൂളിൽ തന്നെ നമുക്ക് ഹോട്ടൽ മാനേജ്മന്റ് പഠിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഐ ടി ഐ കാര്യങ്ങളൊക്കെ പ്രൊവൈടെയ്യുന്നുണ്ട് അപ്പന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കില് നമുക്ക് അതുപോലെ തന്നെ പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ അവരുതന്നെ റെഡി ആക്കി തരും അങ്ങനെയുള്ള പല അതായത് വലിയ വലിയ ഫൈവ്സ്റ്റാർ ഹോട്ടല്കളില് ഫോർസ്റ്റാർ ഹോട്ടല്കളില് അങ്ങനെയുള്ളതിലൊക്കെ നമുക്ക് ഇതൊക്കെ പഠിച്ചു നമുക്ക് കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ജോലി ചെയ്യാനും അതായത് പിന്നെ നമുക്ക് അതുപോലെത്തന്നെ പോ പുറമേയുള്ള രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യാനുള്ള ഒരു ചാൻസ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്